കേരളത്തില് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടവിധം പിന്തുണ ലഭിക്കുന്നവരുണ്ട് എന്നാൽ അത് ലഭികാതെ മാറ്റി നിർത്തപ്പെട്ട കുട്ടികളും ഉണ്ട് ഒര് പക്ഷെ മാറ്റി നിർത്തപ്പെട്ടവരായിരിക്കാം അല്ലെങ്കിൽ അത് കിട്ടാത്തവരായിരിക്കാം അല്ലെങ്കിൽ അത് അറിയാത്തവരായിരിക്കാം അങ്ങനെ കുറെ ആൾക്കാര് ഉണ്ട് എന്ന് വെച്ചാല് ഇപ്പോൾ ഒരു പ്രത്യേക പരിഗണന എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ വയ്യാത്ത അന്ന് വെച്ച ഫിസിക്കലി ഡിസേബിലിറ്റീസൊ അല്ലെങ്കിൽ ആ ഫിസിക്കലി പറ്റ് എന്താ വയ്യാത്ത കുട്ടികളായിരിക്കും ആണെങ്കിൽ അവർക്ക് ഇപ്പോൾ സ്കൂളുകളായിക്കോട്ടെ കോളേജുകളായിക്കോട്ടെ ഇപ്പോൾ ഒരു നടക്കാൻ പറ്റാത്തൊര് കുട്ടിയാണെന്നുണ്ടെങ്കില് ആൾക്ക് ഒരു വീൽ ചെയർ വീൽ ചെയർ ഉണ്ടായിട്ട് മാത്രം കാര്യമുണ്ടോ ഒരിക്കലുവില്ല അത് ഓരോ ക്ലാസ് മുറിയിലേക്ക് എത്താനുള്ള സംവിധാനങ്ങളും അതിൽ ആ കുട്ടിക്ക് കിട്ടേണ്ട ഒരു സപ്പോർട്ട് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് പറയുന്ന ആ ഒരു ഘടകം അത് വേണം വളരെ പ്രധാനമേറിയ ഒന്നാണ് അപ്പോൾ ഇതൊക്കെ പലർക്കും കിട്ടാതെ പോകുന്ന ഒന്നാണ് അതുപോലെ വിദൂര പഠനം എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഒരു അസുഖം ഉള്ള ഒര് കുട്ടിയായിക്കോട്ടെ അല്ലെങ്കിൽ ഡിസേബിലിറ്റീസൊ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പാരൻറ്റ് സപ്പോർട്ട് വേണ്ട കുട്ടികള് അല്ലെങ്കിൽ സ്വയം എന്തെങ്കിലും ചെയ്യാൻ സ്വയം പറ്റാത്ത ഒരു കുട്ടിയായിക്കോട്ടെ ആൾക്ക് ഇപ്പോൾ എന്ത പറയുക വിദൂര പഠനം ഇപ്പോൾ കിട്ടിയ കോളേജ് കുറച്ച് ദൂരെയാണെങ്കിലും ആൾക്ക് പൊരുത്തപ്പെടാനും സ്വയം കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ഒര് സഹായത്തിനൊരാളെ കിട്ടാനും അതൊക്കെ എന്താണ് എല്ലാ ആൾക്കാർക്കും കിട്ടിക്കോളണം എന്നില്ല അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും അത് ഉൾക്കൊണ്ട് അവരെ സ്വീകരിക്കണമെന്നില്ല അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട കുട്ടികള് വളരെ കൂടുതലാണ് പിന്നെ പറയുന്നത് സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടലാണ് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പുതിയ സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടുക എന്ന് പറയുമ്പോള് നമ്മുടെ പുതിയ ടെക്നോളജി ഇപ്പോൾ പാവപ്പെട്ട അല്ലെങ്കില് ഇങ്ങനത്തെ നമ്മുടെ ലോകത്തിന് വരുന്ന മാറ്റങ്ങള് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫോണിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫോണുകളുമായിട്ട് ഫോണില്ലാത്തൊര് വ്യക്തിയാണ് അല്ലെങ്കിൽ ഫോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ആ ഒരു കമ്പ്യൂട്ടർ ഫീൾഡിലോട്ട് എത്തിപ്പെടാത്ത കുട്ടികളത് എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിലിത് എന്തൊക്കെയാണ് ഉള്ളത് ഇത് കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്താണ് ദോഷങ്ങൾ എന്താണ് ഇതൊന്നും അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും അപ്പം ഇവര് ഇപ്പോൾ പോകുന്ന എന്ന് വെച്ചാൽ നമ്മുടെ ജനറേഷനോട് കുടിയിട്ട് പുതു തലമുറയോട് കൂടി എന്താ അറിവുകളും അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങള് അറിയാണ്ട് മുന്നോട്ട് അവരെ കൂടെ ആ ഒര് തലമുറയോട് കൂടി പോകാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഒര് പക്ഷെ ഓരോ മനുഷ്യരും വിചാരിച്ച് കഴിഞ്ഞാൽ ഓരോര്ത്തരെയും സഹായിക്കാവുന്നതാണ് അപ്പോൾ പരസ്പരമുള്ള ആ ഒര് കാഴ്ച്ചപ്പാടും അല്ലെങ്കിൽ പരസ്പരമുള്ള ആ ഒര് സഹകരണമൊക്കെ ഇതൊക്കെ ഒര് വിധം നമുക്കൊന്ന് മാറ്റി എടുക്കാൻ പറ്റുന്ന ഒര് കാര്യമാണ് അതുപോലെ വ്യക്തിഗതമാക്കിയ പഠനം വികസിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താ പറയുക പഠനത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് പഠിപ്പിക്കാനും പഠിക്കണ്ട പോലെ അത് പഠിക്കുവാനുമുള്ള കഴിവ് ഓരോ കുട്ടികൾക്കും വേണമെന്നാണ് ഈ ഒര് വിഷയത്തിന് എന്നെനിക്ക് തോന്നുന്നു